ഒന്ന് ആറ് രണ്ടായിരത്തി മൂന്ന് പതിനേഴ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് നാല് ഒൻപത് രണ്ടായിരത്തി പതിനഞ്ച് ഏഴ് മൂന്ന് രണ്ടായിരത്തി മൂന്ന് പതിനേഴ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത്